ഹലോ ഹലോ ദീപു സാറല്ലേ ആ ഞാന് ഇന്നലെ വിളിച്ചായിരുന്നു ഒരു പാക്കേജ് സംബന്ധിച്ചുള്ള വിവരം തിരക്കാന് വേണ്ടിയേ അപ്പം ഞാനപ്പം നാളെ വൈകുന്നേരമായിരിക്കും എനിക്ക് ലാന്റിങ്ങ് ടൈമ് അപ്പം സമയം ഏഴ് അരയ്ക്ക് ഏഴ് അരയ്ക്കാണ് നമുക്ക് ലാൻറ്റിഗ് ടൈം വരുന്നു അവിടെ ട്രിവാൻഡ്രത്താണ് അപ്പം നമുക്ക് അത് എനിക്ക് രണ്ട് ദിവസത്തെ ഒരു ടൂര് പാക്കേജാണ് വേണ്ടത് രണ്ട് ദിവസത്തെ അപ്പോൾ പിക്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ഉപകാരം നമുക്ക് ഫാമിലി ഉള്പ്പെടെ ആണ് വരണത് ഞങ്ങൾ നാല് പേർ

ഓക്കെ അതെ അതെ എനിക്കതാണ് അത്യാവശ്യം അതിനാണ് ഞാനീ ഓണത്തിനെക്കേക്ക് എടുത്തത് ആണ് ഓക്കെ പിന്നെ അത് പോലെ ഞാന് പറഞ്ഞില്ലേ നമുക്കൊരു ബോട്ട് സര്വീസിന്റെ എന്തേലും വേണമായിരുന്നു ആ ഓക്കേ ഓക്കേ ഓക്കെ

അതെ അതെ അതെ

അപ്പം ആ ഓക്കെ അപ്പം ഫുഡിന്റെ ഒക്കെ എങ്ങനാണ് വരുന്നത് ഈ രണ്ട് ദിവസത്തെ ഈന്റ്റാത്തിലും ഫുഡ് ഇന്ക്ലൂഡഡ് അല്ലേ അതോ ഓക്കെ ഓക്കെ തീര്ച്ചയായിട്ടും ഓക്കെ അത് കുഴപ്പമില്ല നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ചോദിച്ചിട്ട് നമുക്ക് വണ്ടീന്റെ അത് ട്രിപ്പിന്റ്റാത്ത് വരുന്നതാണോ അല്ലല്ലോ വേറെ ഓക്കെ അത് കുഴപ്പമില്ല അപ്പം ഞാന് ഒന്ന് സംശയം ചോദിച്ചൂന്നെ ഉള്ളൂ അത് നമുക്ക് ഈ വള്ള സദ്യക്ക് നമുക്ക് എപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചെല്ലാന് പറ്റും ഓക്കേ

അതെയോ ഓക്കെ പിള്ളേര്ക്ക് പറ്റൂല്ലേ അപ്പം ആ ഓക്കെ മതി മതി അത് മതി

അത് അത് നിങ്ങൾ കൊണ്ട് വരത്തില്ല നമ്മൾ കൊണ്ട് വരണമല്ലേ ഓക്കെ ശരി ശെരി പിന്നെ നമുക്ക് അന്ന് ഞാൻ വേറെ നമുക്ക് പര്ച്ചേസിങ്ങ് ഒന്നുമില്ല നേരെ വരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാന് ചോദിച്ചത് അപ്പം അതെ അതെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഇത് നമുക്ക് പേമെന്റ് നമുക്ക് ആ ഇതിന് ശേഷമല്ലേ ഉള്ളൂ അല്ലാതെ മുന്കൂര് അങ്ങോട്ട് പേയ്മെന്റ് ചെയ്യണ്ടല്ലോ അഡ്വാന്സ് വേണമല്ലേ അപ്പം നമുക്ക് അതിന്റെ ഡീറ്റേയ്ല്സ് ഇങ്ങ് ഇട്ട് തന്നെ ഞാനതിപ്പം ചെയ്തേക്കാം തീര്ച്ചയായും തീര്ച്ചയായും ചെയ്യാം ചെയ്യാം വേറെ നമുക്ക് ഈ ഒരു രണ്ട് ദിവസത്തിനകത്ത് വേറെ നമുക്ക് എവിടെലും പോകാന് പറ്റുമോ സമയമുണ്ടെങ്കിൽ

ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഓക്കെ മതി മതി അപ്പോൾ നാളത്തെ അതിൽ സമയമുണ്ടെങ്കില് ബാക്കി ഉണ്ടെങ്കിൽ ബാക്കി എന്തേലു ഒന്ന് ഇന്ക്ലൂഡ് ചെയ്യാന് പറ്റുവോന്ന് നോക്കുക ഓക്കെ ഞാനതിപ്പം ഓക്കെ ഞാനതിന്റെ ഡീറ്റേല്സും പേയ്മെന്റ് ന്റെ ഇതും എനിക്ക് ഇട്ട് ഒന്ന് ഇട്ടാൽ മതി അതിന്റെലേക്ക് ഞാന് ചെയ്തോളാം ഓക്കെ